എൻ്റെ പ്രദേശം ഒരു ചെറിയ നാട്ടിൻ പുറമാണെങ്കിലും കൂടി ഞാൻ ജനിച്ച ഒരു സമയമെന്ന് പറയുന്നത് ഒരു പുതു തലമുറയിലേക്ക് വരുന്ന ഒരു പുതിയ തലമുറയിൽ ജനിച്ച ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു നാടോടി ഗാനങ്ങളും പണ്ടത്തെ ആ ഒരു ഗാനങ്ങളുടെ പ്രാധാന്യങ്ങളുമൊന്നും കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല നാട്ടിൽ നിന്ന് എങ്കിലും കൊയ്ത്ത് സമയങ്ങൾ ആവുമ്പോൾ അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന ആ ഒരു സമയത്ത് അവിടെ പണിയെടുക്കാൻ വരുന്ന ആണുങ്ങളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവർ ഒരുമിച്ച് പാട്ടുകൾ പാടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ പാട്ടുകളൊന്നും എനിക്കങ്ങനെ അറിവില്ല എങ്കിലും അവർ പാടുന്ന രീതിയും അത് ആവേശം അന്നെച്ചാ ചെയ്യുന്ന പണി കൂടുതൽ ആവേശത്തോടു കൂടി ചെയ്യുവാനും ഒരു ഒത്തൊരുമയുടെ ആ ഒരു രീതിയും എല്ലാം ആ ഗാനങ്ങളിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഞാൻ പിന്നീട് കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ മറ്റെ മരത്തടി കച്ചവടക്കാരും ഈ മരം കയറ്റുന്ന ആൾക്കാരുമൊക്കെ അവർ ഈ കയറ്റുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് പാടി എല്ലാവരും പാട്ട് പാടി ഐലസാ പൊക്ക് പൊക്കുമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പാട്ടൊക്കെ പാടി മരങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വ്യത്യസ്തമേറിയ ആ ഒരു വരികളും ഭയങ്കര അവരുടെ ഒത്തൊരുമയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് ആ പാട്ടുകൾ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എൻ്റെ മുത്തശ്ശി മുത്തശ്ശന്മാർ ആ ഒരു മുത്തശ്ശികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ എന്താണ് പറയുക നല്ല പണ്ട് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്ന ഞാൻ ഒരു മുസ്ലിം പിന്നേ കുടുംബത്തിൽ വളർന്ന ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ എൻ്റെ മുത്തശ്ശി എൻ്റെ ഉമ്മമ്മ എന്ന് പറയുന്ന വ്യക്തി വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന പാട്ടുകൾ എന്ന് വച്ചാൽ അവരിങ്ങനെ പാടിയിരുന്നു കുറേ നല്ല രസകരമായിട്ടുള്ള നമ്മുടെ ഓരോ നിമിഷത്തെയും പറ്റി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പാട്ടുകൾ എനിക്ക് പാടി തന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ എന്ന് വച്ചാൽ നമുക്ക് പുതിയ തലമുറയ്ക്ക് അത് പഠിക്കുവാനും അത് ആ ഒരു നമ്മുടെ പുതിയ തലമുറയിലെ സിറ്റുവേഷൻസിന് നമുക്ക് മാച്ച് ചെയ്യാനും പാടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും അവർക്ക് അത് വളരെ അവർ പാടുമ്പോഴും അത് കേൾക്കുമ്പോഴുമൊക്കെ നമുക്ക് വളരെ അത്ഭുതകരവും ഭയങ്കരം രസകരമായിട്ടും അത് ആ ആസ്വദിക്കാനും അത് കേൾക്കുവാനുമൊക്കെ വളരെ ഇഷ്ട്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും അത് എല്ലാവർക്കും ഇഷ്ട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ ഒരു തലമുറയിലോട് കൂടിയിട്ട് അത് നിന്ന് പോയി എന്നുള്ളതാണ് വേറെ ഒരു സത്യം